നിലവിലെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ത്തിൽ സാങ്കേതിക വിദ്യ വളരെയധികം സഹായിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കോവിഡ് കാലഘട്ടത്തിൽ ഓൺലൈൻ ക്ലാസ്സുകളെയായിരുന്നു കുട്ടികളൊക്കെ ആസ്രയിച്ചിരുന്നത് ഇപ്പോഴും ഓൺലൈൻ ക്ലാസുകൾ തുടരുന്നു അതുപോലന്നെ യുട്യൂബിൽ വിവിധ ട്യൂഷൻ സ്ഥാപനങ്ങൾ അവരുടേതായ ക്ലാസുകൾ അപ്ലോഡ് ചെയ്യുന്നു കുട്ടികൾ അത് വളരെ രസകരമായ രീതിയിലും ആകർഷകമായ രീതിയിലും കണ്ട് അവരത് പഠിക്കുന്നുണ്ട് ഓൺലൈൻ കോഴ്സുകൾ ധാരാളം ലഭ്യമാണ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ ഓൺലൈൻ അഡ്മിഷൻ ഇ ബുക്ക്സ് റിസർച്ച് തുടങ്ങിയവയൊക്കെ സാങ്കേതിക വിദ്യയെ പരമാവധി അതിൻ്റെ പൂർണതയിൽ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നടക്കുന്നത് ഓൺലൈൻ അഡ്മിഷൻ ആദ്യകാലത്തുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിൽ വലിയ കോഴ്സുകൾക്കാണ് ഉള്ളത് സ്കൂൾ തലത്തിൽ ഓൺലൈൻ അഡ്മിഷൻ ഇല്ല ഈ ബുക്ക്സ് ആ വായനേടേം ഈ വായനേടേം കാലഘട്ടത്തിൽ ഈ വായന എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുകയും അതിലൂടെ ആളുകൾ പുസ്തകങ്ങൾ ഓൺലൈനിൽ കാണുകയും അതിൽ വായിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാലും പുസ്തകം കയ്യിലെടുത്ത് വായിക്കുന്ന ആ ഒരു ഫീല് കിട്ടില്ല യുട്യൂബ് വീഡിയോസ് കുട്ടികളെ ഒരുപാട് ട്യൂഷൻ കമ്പനികൾ ട്യൂഷൻ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വ്യവസായത്തിൻ്റെ തടത്തിലേക്ക് കൊണ്ട് വരുകയും അതിലൂടെ നിരവധി കുട്ടികളെ വിവിധ ഓൺലൈൻ പാറ്റ്ഫോമിലേക്ക് കൊണ്ട് വന്ന് ട്യൂഷനെടുത്ത് പരമാവധി അവർ അവരെ ബിസിനസ്സിൻ്റെ വളർച്ചയും അതിനുള്ളിൽ ലഭ്യമാവുന്ന കുട്ടികൾ ഒരു ആകർഷകവും വ്യത്യസ്തവുമായ രീതിയിലുള്ള ക്ലാസ്സുകൾ ലഭിക്കേം ചെയ്യുന്നു